തീർച്ചയായിട്ടും വസ്ത്രം നെയ്യുന്നതിലേറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം അളവെടുക്കുകയെന്നുള്ളതാണ് കാര്യം സാധാരണഗതിയില് നമ്മള് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തയാളുകളായതുകൊണ്ട് അളവെടുത്ത് അതിൻ്റെ നമ്മളാദ്യ കാലഘട്ടങ്ങളിലൊക്കെ തയ്ക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത് പ്രത്യേകിച്ച് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മള് തയ്ക്കുമ്പോള് സ്വാഭാവികമായിട്ട് ആളുകൾ വസ്ത്രങ്ങൾ കൊണ്ടുതരികയും നമ്മള് തയ്ക്കുകയും ചെയ്യുമ്പോള് ചില സമയങ്ങളിലൊക്കെ അവര് ഈ അതിൻ്റെ സ്റ്റിച്ചിങ് ചില സമയത്ത് അത് നല്ലതായി മാറാറില്ല അതേറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് കാര്യം നമുക്ക് ഒരു വസ്ത്രം ഇപ്പോള് ഒരു ഫ്രോക്കോ അല്ലെങ്കിലൊരു ഒരു ചുരിദാറോ അല്ലെങ്കില് ഒരു ഷർട്ടോ തയ്ക്കുമ്പോള് നമക്കേറ്റവും അറിയില്ലാത്തൊരു കാര്യം ഈ ആളുകളുടെ എത്ര വസ്ത്രമെടുക്കണം എന്നിട്ടുള്ള അളവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത് പ്രത്യേകിച്ച് പൈസ തന്ന് പേയ്മെൻറ് നടത്തി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ മുഴുവനായിട്ട് ബാധിക്കുന്ന കാര്യമാണ്